ഞാൻ എല്ലാ ദിവസവും പത്രം വായിക്കുന്നത് എനിക്ക് ഒരു ഇഷ്ടമുള്ള ഒരു വിഷയമാണ് രാവിലെ കുറച്ചു നേരം അതിന് ഞാൻ ചിലവാക്കാറുണ്ട് പലപ്പോഴും ഇതിനകത്ത് വായിക്കുന്നത് വിനോദ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ശാസ്ത്രത്തിൻ്റെ വളർച്ച എനിക്ക് വളരെ ഇഷ്ടം ഉള്ള ഒരു വിഷയമാണ് കുറ്റകൃത്യം അത് എന്തോ അതൊരു അതിൽ ഒരു രു ആകർഷത ഉണ്ട് ഇപ്പം പക്ഷേ അത് കുറ്റകൃത്യം ഇപ്പം കൂടി വരുന്നതിൽ ഒരു മനപ്രയാസമുണ്ടെങ്കിൽ പോലും ആ കുറ്റകൃത്യങ്ങൾ നമുക്ക് വായിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഷയമാണ് അതേപോലെ ഈ ബിസിനസ്സ് ബിസിനസ്സ് എപ്പോഴും വളരെ ഒരു സന്തോഷമുള്ള ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ഇപ്പോഴത്തെ ഒരു നിലവാരം എന്താണ് മറ്റു രാഷ്ട്രങ്ങളുമായിട്ട് ഇന്ത്യ ബിസിനസ്സ് ലെവലിൽ എങ്ങനെ നിൽക്കുന്നു ഇവിടെ നിന്നുള്ള കയറ്റുമതി എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഒരു കുതിപ്പ് എങ്ങനെയാണ് ചൈനയുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യുമ്പം ഇന്ത്യ എത്രത്തോളം ഒരു കയറ്റുമതി ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇറക്കുമതിയാണോ കൂടുതൽ കയറ്റുമതിയാണോ കൂടുതൽ ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനും അതിനെ കുറിച്ച് കൂടുതൽ അപഗ്രഥനം നടത്താനും അതിനെ കുറിച്ച് ഓരോരുത്തർ എഴുതുമ്പഴ് അത് വായിച്ചു മനസ്സിലാക്കി കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നതുമൊക്കെ സന്തോഷമുള്ള കാര്യമാണ് അതുപോലെയാണ് ശാസ്ത്രം നമുക്ക് ഇവിടെ തൊട്ടടുത്ത് വിക്രം സാരാഭായി സ്പേസ് സെൻ്റർ ഉള്ളതുകൊണ്ടു തന്നെ നമുക്ക് അബ്ദുൽ കലാം സാറുമൊക്കെ ആയിട്ട് വളരെ അടുത്ത് അദ്ദേഹത്തിന് നമ്മളെ അറിയില്ലെങ്കിലും അദ്ദേഹത്തെ നമുക്ക് അറിയാം കാരണം അദ്ദേഹം ഈ ശാസ്ത്ര പുരോഗതിക്ക് വിക്രം സാരാഭായി സ്പേസ് സെൻ്ററിലായാലും ഇന്ത്യയുടെ ശാസ്ത്ര പുരോഗതിക്ക് ആയാലും മിസൈലിൻ്റെ ശാസ്ത്ര പുരോഗതിക്ക് ആയാലും ഒപ്പം ഈ രാഷ്ട്രത്തിന് വളരെയധികം സംഭാവനകള് നൽകിക്കൊണ്ട് കടന്നുപോയ ഒരു വ്യക്തിത്തമാണ് ഈ അബ്ദുൽ കലാം സാറ് അപ്പോൾ അദ്ദേഹം ഈ ശാസ്ത്രത്തിന് നൽകിയ സേവനങ്ങൾ നമുക്ക് മനസ്സിലാക്കുമ്പം അതിൻ്റെ ബാക്കി ആയിട്ടാണ് ഇന്ത്യ ഇത്ര അധികം റോക്കറ്റ് വിക്ഷേപണത്തിൽ ആയാലും ചന്ദ്രനിലേക്ക് കടന്നു കയറിയതിൽ ആയാലും മറ്റ് കാലാവസ്ഥ നിരീക്ഷണങ്ങളുടെ കാര്യത്തിൽ ആയാലും ഇന്ന് ഇപ്പം ഐ ടി മേഖലയുടെ വികസനത്തിനു വേണ്ടിയിട്ട് നമുക്ക് ഉള്ള പുരോഗതിക്കു വേണ്ട ആദ്യ കാല ഒരു പ്രവർത്തനങ്ങൾ നടത്തിയത് അന്ന് ഈ അബ്ദുൽ കലാം സാറിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ഫലമാണ് ഇന്ന് നമ്മുടെ വളർച്ച അപ്പോൾ ശാസ്ത്രം എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എഴുത്തുകളെല്ലാം അല്ലെങ്കിൽ പത്രത്തിൽ വരുന്ന ആർട്ടുകളിൽ എല്ലാം ഞാൻ ധാരാളം വായിക്കാറുണ്ട് അത് അതേപോലെ കായികം നമ്മുടെ രാജ്യം കായിക രംഗത്ത് എത്ര കണ്ട് മുന്നേറിയിട്ടുണ്ട് ഇപ്പം ആ കായികത്തിന് കൊടുക്കുന്ന പ്രാധാന്യം കായിക മേഖലയിൽ നിൽക്കുന്നവർ അവരുടെ കുതിപ്പ് കേരളത്തിൽ ഉള്ളവരുടെ കായിക മേഖലയിൽ അവർ എത്രത്തോളം മുന്നേറുന്നു എന്നുള്ള കാര്യമെല്ലാം വളരെ സന്തോഷത്തോടെയാണ് വീക്ഷിക്കുന്നത് ഇപ്പം ഈ ഇടയ്ക്ക് ക്രിക്കറ്റ് നമ്മൾ ഇന്ത്യ ജയിച്ചു നിന്നപ്പം വളരെ അഭിമാനമായിട്ട് അത് കാണാനും സാധിച്ചു ഞങ്ങളുടെ അടുത്ത് ഒരു സ്റ്റേഡിയം ഉണ്ട് യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റേഡിയം ഉണ്ട് ആ സ്റ്റേഡിയത്ത് ഇടയ്ക്ക് ക്രിക്കറ്റ് കളി വരുമ്പം അവിടത്തെ ഒരു ആവേശം അത് കേരളത്തിൽ എമ്പാടുമുള്ള ജനം അവിടെ വരാറുണ്ട് അതിൻ്റെ ഒരു ആവേശം അല്ല സന്തോഷത്തോടെ കാണുന്നുണ്ട് അത് പത്രത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം ഈ തരം വിഷയങ്ങൾ കൂടാതെ വിദ്യാഭ്യാസ മേഖലയായിട്ട് ബന്ധപ്പെട്ട ആ വിഷയങ്ങളുണ്ട് രാഷ്ട്രീയം ധാരാളമായിട്ടുണ്ട് എന്നിരുന്നാലും രാഷ്ട്രീയം എനിക്ക് ഇപ്പോൾ അത് ഒരു ഇഷ്ടമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് കാരണം രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം കൂടുംബം നമുക്ക് വികസനത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ കാലിക പ്രസക്തിയുള്ള മറ്റു കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ പോകുന്ന ഒരു രീതി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകൾ മാത്രം കാണുമ്പം രാഷ്ട്രീയത്തിലോട്ട് താല്പര്യക്കുറവുണ്ട് ബാക്കി എല്ലാ മേഖലകളിലുള്ള വാർത്തകളും പത്ര മാധ്യമങ്ങളിലൂടെ വായിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അത് അതിൽ സന്തോഷമുണ്ട്